വല്യ ആൾക്കാരുടെ പരിപാടി ആണോ ഓ അതെയാ നമ്മൾ ഇവിടെ ഓ നെക്സ്റ്റ് വീക്കാണ് അല്ലേ ട്രഡീഷണൽ ആയിട്ട് ഉള്ള ഫുഡിന് പേര് കേട്ട ഒരു ഹോട്ടൽ ആണ് ഇത് അപ്പോൾ അത് പോലെ തന്നെ ട്രഡീഷണൽ ഫുഡ്ഡ് തന്നെയല്ലേ നിങ്ങളും ഉദ്ദേശിക്കുന്നത് ആ പക്ഷെ ഇത് ട്രഡീഷണൽ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളതും ഞാൻ ഒരു ട്രഡീഷണൽ കുക്ക് കൂടി ആണ് അപ്പോൾ ആ അപ്പോൾ അത് പോലത്തെ ഐറ്റംസ് എന്തായാലും നല്ല രീതിയിൽ ഉണ്ടാക്കും ഇല ഒക്കെ ഇട്ടിട്ട് ഉള്ള സദ്യ ആക്കുന്നത് ആയിരിക്കൂല്ലേ കുറച്ച് കൂടെ നല്ലത് ആ ആ ആ ആ ആ ആ ആ അല്ല നമ്മക്ക് ട്രഡീഷണൽ ആവുമ്പോഴ് അതിൽ പക്ക വെജ് വരും അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വറുത്തരച്ച് ഉള്ള ചിക്കൻ കറിയും കൂടെ തരാൻ പറ്റും ഇത് അത് ഒര് ഇലയ്ക്ക് ആണെങ്കിൽ ഒരു ഫൈവ് ഹണ്ട്രഡ് വരും അഞ്ഞൂറ് രൂപ ആണ് ഒരു ഇലയ്ക്ക് വരുന്നത് ഓ രണ്ട് തരം പായസം ഉണ്ടാവും പിന്നെ നിങ്ങൾ പരിപാടിക്ക് എന്തായാലും പത്ത് അഞ്ഞൂറ് പേര് വരുമ്പോൾ നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് അതും നമ്മൾ തരും പിന്നെ പായസം ഉണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ബർത്ത് ഡേ പാർട്ടി അല്ലേ പറഞ്ഞത് അപ്പോൾ അതിന് ഉള്ള ഐസ് ക്രീം നമ്മൾ തരും പക്ഷെ ഇത് ഇല ഇട്ടിട്ട് ഉള്ള സദ്യ ആണ് പത്ത് പതിനഞ്ച് തരം കറികളും എല്ലാം ഉണ്ടാവും ആ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അത് നമ്മൾ നിങ്ങൾ അഞ്ഞൂറ് പേർക്ക് ആവുമ്പോൾ അത്യാവശ്യം നമ്മൾ അത് നോക്കീട്ട് ചെയ്താൽ മതിയല്ലോ അല്ലേ അതിൻ്റെ വലിപ്പം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറ് പറഞ്ഞാൽ മതി ഇത് കണ്ണൂർ പയ്യാമ്പലത്തിന് അടുത്താ വരുന്നത് ശരി ശരി ആ ഏത് ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടുകറി ഒക്കെ വളരെ നല്ലതാണെന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ അതെയല്ലേ ഓ ഞങ്ങൾ ഇങ്ങനെ പാർട്ടിക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതും ആണ് വല്യ വല്യ ഓർഡർ ഒക്കെ എടുത്തിട്ടും എല്ലാം ചെയ്ത് കൊടുക്കാറ് ഉണ്ടായിരുന്നു ശരി ശരി ശരി ശരി പറയാം പറയാം നാളെ എന്നാൽ നിങ്ങൾ വരൂ ശരി ഉണ്ടാവും ഉണ്ടാവും ആ ശരി